ഹലോ ഞാൻ ഇന്ന് കുറച്ച് മുൻപ് സ്വിഗ്ഗിയിൽ ഓഡറ് ചെയ്തായിരുന്നു ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അങ്ങനെ ഞാൻ ഇന്നെൻ്റെ വീട്ടിൽ കുറച്ച് സുഹൃത്തുക്കളെ ഞാനിന്ന് ക്ഷണിച്ചായിരുന്നു അവരും അവരെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ നൈറ്റ് കുറച്ച് ഭക്ഷണങ്ങൾ ഓർഡറ് ചെയ്തായിരുന്നു പത്തു പേർക്കാണ് ഞാൻ ക്ഷണിച്ചത് അങ്ങനെ അവർക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പത്ത് പേര് വരാൻ ഇരുന്നതിൽ അഞ്ച് പേർക്ക് വരാൻ ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അഞ്ച് പേർക്കുള്ള എല്ലാ ഐറ്റത്തീന്ന് അഞ്ച് പേർക്കുള്ള ഫുഡ് ക്യാൻസല് ചെയ്തിട്ട് അഞ്ച് പേർക്ക് കൊണ്ട് വരിക അതിൽ ബുദ്ധിമുട്ടുണ്ടോ അതിൽ ക്യാൻസല് ചെയ്യുന്നതിൽ അല്ല പേയ്മെൻറ്റോ കംപ്ലൈൻറ്റോ രജിസ്റ്റർ ചെയ്യണമോ ഇനി അതിൽ ലേറ്റാകുമോ ഇനി എന്ത് എന്താണ് ചെയ്യേണ്ടത് ഇനി അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ നമ്പറിൽ തന്നെ വീണ്ടും കോൺടാക്ട് ചെയ്യുന്നതാണ് ലേയ്റ്റാകുമെങ്കിൽ പറയുക ഇനി വല്ല സൂചനകൾ പറയാനുണ്ടെങ്കിൽ പറയുക ഇങ്ങനെ പേയ്മെൻറ്റ് കൂടുമോ ലേയ്റ്റാകുമോ ഉണ്ടെങ്കിൽ പറയുക